ഒരു പ്രൈമറി സ്കൂൾ അധ്യാപിക എന്ന നിലയിൽ പ്രത്യേകിച്ചും ഒന്നാം ക്ലാസ്സിലെ അധ്യാപിക എന്ന നിലയിൽ ഞാനീ സ്റ്റാമ്പ് അതുപോലെ നാണയങ്ങൾ കല്ലുകളക്കെ ശേഖരിക്കാൻ കാരണം കുട്ടികളെ കാണിക്കാനായിട്ട് വെയ്ക്കും അതുപോലെ കുട്ടികളുടെ സംഖ്യാബോധം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും വേണ്ടിയിട്ട് കൂടെ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി ശേഖരിക്കുന്നത് അപ്പം അതിനുള്ള ഈ ശേഖരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കുട്ടികളെ എണ്ണം പഠിപ്പിക്കാനും അതുപോലെ കൂട്ടങ്ങളാക്കാനും അതുപോലെ പല കുട്ടികളും ഇങ്ങനെയുള്ള സ്റ്റാമ്പുകളൊന്നും നാണയങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല അതാ കുട്ടികളെ പ്രധാനമായിട്ടും കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഇങ്ങനെയുള്ള സ്റ്റാമ്പുകളും അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ ശേഖരിക്കുക്ക അപ്പം അത് കൂടുതൽ കുട്ടികളെ കാണിക്കാനാണ് പ്രയോജനപ്പെടുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ എണ്ണം പഠിപ്പിക്കാനായിട്ട് കുട്ടികൾക്ക് പലപ്പോഴും എണ്ണി ഓരോ കൂട്ടങ്ങളാക്കി മാറ്റിവെക്കാനും കൂടുതൽ സംഖ്യാബോധം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടി ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്നുണ്ട്